എനിക്കങ്ങനെ ഒരു വാദ്യോപകരണവും വായിക്കാൻ അറിയില്ല കാരണം ഞാൻ കുഞ്ഞിലേ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സംഗീതം പഠിക്കാനോ ഡാൻസ് പഠിക്കാനോ വാദ്യോപകരണങ്ങൾ പഠിക്കാനോ ഒന്നും ഞാൻ പോയിട്ടില്ല അപ്പം വാദ്യോപകരണങ്ങളൊക്കെ വാദ്യോപകരണങ്ങളൊക്കെ പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ളൊരു സന്ദർഭം കിട്ടിയിട്ടില്ല എനിക്ക് പഠിക്കുവാണെങ്കിൽ വയലിൻ പഠിക്കാനാണ് ഏറ്റവും ഇഷ്ടം ഒരു വയലിനിസ്റ്റ് ആവുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ലോകം മുഴുവനും അറിയുന്ന ഒരു വയലിനിസ്റ്റ് ആവുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരാഗ്രഹം എനിക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ വയലിൻ വായിക്കാൻ പഠിക്കാൻ പോവും എല്ലാവരും അറിയുന്ന ഞങ്ങളുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന നല്ല ഒരു വയലിനിസ്റ്റ് ആവുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ ചെറുതായിട്ടൊക്കെ എനിക്ക് വയലിൻ ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഓരോരുത്തരുടെയൊക്കെ കയ്യിലിരിക്കുമ്പം ചെറുതായിട്ടൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ ശരിയായിട്ടില്ല ഇന്നുവരെ അപ്പം നന്നായിട്ട് വയലിൻ വായിക്കണം ലോകമറിയുന്ന ഒരു വയലിനിസ്റ്റ് ആവണം എന്നുള്ളതാണ് എൻ്റെ തീവ്രമായ ഒരാഗ്രഹം എങ്ങനെയെങ്കിലും അത് പഠിച്ചെടുക്കണം എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാനത് പഠിച്ചെടുക്കും എനിക്കേറ്റവും ഇഷ്ടം വയലിൻ ആണ് വയലിൻ എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം എന്ന ഒരാഗ്രഹം എനിക്കുണ്ട് ആദ്യം അതിനൊരു വയലിൻ വാങ്ങിക്കണം എന്നിട്ട് സ്വന്തമായി പഠിച്ചു തുടങ്ങണം എന്ന ഒരാഗ്രഹമാണ് എനിക്കുള്ളത്